അങ്ങനെ കരുതാനാവില്ല ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകള്ടെ ആവശ്യങ്ങൾ അങ്ങീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാനാവില്ല ഇപ്പോൾ പഞ്ചായത്ത് വഴി മുൻസിപ്പാലിറ്റി വഴിയൊക്കെ അവർക്ക് ഒത്തിരി സഹായങ്ങൾ നൽകുന്നുണ്ട് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് അവർക്ക് ബോധവൽക്കരണ ക്യാമ്പ്കളും കൃഷിക്കാവശ്യമായ ഉപകരണങ്ങളും കൃഷിയെ ക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് സബ്സീഡി ആയിട്ടും ലോണുകളക്കെ അവർക്ക് അനുവദിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം കാരണം പണ്ട് ആലുകളില്ലാതെ കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഇവരുടെ നേതാക്കന്മാരായാലും കൗൺസിലറോ പഞ്ചായത്ത് മെമ്പറോ ഒക്കെ വഴി കാര്യങ്ങളൊക്കെ അവരറിഞ്ഞ് തുടങ്ങി അത് പോലെ തന്നെ ഇപ്പോൾ ഗെവൺമൻട് പാസ്സാക്കിയ നിയമമുണ്ടല്ലോ മഹാത്മാ ഗാന്ധി ദേശിയ ഗ്രാമീണ തൊഴിലുറപ്പ് ആ നിയമത്തിൻ്റെ ഭാഗമായിട്ടൊരു ഗ്രാമീണ കുടുംമ്പത്തിന് ഒരു സാമ്പത്തിക വർഷം നൂറ് തൊഴിൽ ദിനങ്ങളക്കെ ഉറപ്പ് നൽകുന്നുണ്ട് അതക്കെ അവർക്ക് സഹായകമാണ് ഇത് അവരുടെ ഉന്നമനത്തിനും ദാരിദ്ര്യ നിർമ്മാജനത്തിനൊക്കെ ലക്ഷ്യം വിട്ടുള്ള സംരംഭങ്ങളാണ്